ശാരീരികവും മാനസികവുമായി ക്ഷേമത്തിനു കളികൾ എങ്ങനെ സഹായിക്കുന്നു എന്നു ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഉദാഹരണത്തിന് ഫുട് ബോൾ ഫുട് ബോളെന്ന കളി വേൾഡ് ഫേമസാണ് ഫുട് ബോളിലൂടെ നമ്മൾ ആ കളികൾ കളിക്കുന്നതിലൂടെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓട്ടത്തിലൂടെ നമ്മൾ മെറ്റബോളിസം കൂടിക്കൊണ്ടിരിക്കയാണ് ശരീരത്തിൽ അത് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് ആ കൂടുകയാണ് ഇ ഇതിനോട് ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു മാനസികമായ ഒരു സന്തോഷം ഈ കളി നമുക്ക് തരികയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിനു കളികൾ എങ്ങനെ സഹായിക്കുന്നു എന്ന്